ഇ ബുക്ക് എന്നുവെച്ചാൽ ഇലക്ട്രോണിക് ബുക്ക് ഈ വളരുന്ന ഡിജിറ്റൽ മേഖലയിൽ ഇലക്ട്രോണിക് ബുക്ക് ഒരു വലിയ വളരെ നല്ല ഒരു പ്രൊഡക്ടാണ് ഈ ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എത്ര ബുക്ക് വേണമെങ്കിലും നമുക്ക് ഒരു മൊബൈലിലോ ലാപ്ടോപ്പിലോ സ്റ്റോർ ചെയ്തിട്ട് പോകാം ഇത് സാധാരണ ബുക്കിൻ്റെ ഉപരി അതിന് സ്പേസും പിന്നെ പൈസയും കുറയ്ക്കുന്നു ഇലക്ട്രോണിക് ബുക്ക് നമുക്ക് കുറഞ്ഞ എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്നതിനാൽ എല്ലാ ആൾക്കാർക്കും അഫ്ഫോർഡ് ചെയ്യാനും കഴിയും അതുകൊണ്ട് ഇലക്ട്രോണിക് ബുക്ക് ഒര് നല്ല സംഭവമാണ്